ഓഹ് പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെയൊക്കെയങ്ങ് പോവുന്നു ഈ ആഴ്ച്ച പറയുമ്പോൾ എന്നാണ്

ആലോചിക്കാം

ഹലോ കേൾക്കാമോ ആ കേൾക്കാമോ ഹലോ ഏഴു മണി ശനിയാഴ്ച്ച ഒന്ന് രണ്ട് പരിപാടികളുണ്ടായിരുന്നു കുഴപ്പം എപ്പോഴാണ് ഏഴ് വൈകിട്ട് ഏഴുമണിക്കല്ലേ എടാ അഞ്ച് അഞ്ച് മണിക്കിറങ്ങിയാൽപ്പോരേ കൊച്ചിവരെ പോകണമെങ്കിൽ ഒരു മൂന്ന് മൂന്നു മണിക്കെങ്കിലും ഇറങ്ങണം പിന്നെ ട്രാഫിക്ക് ട്രാഫിക്കൊക്കെ ആണെങ്കിലേ

വേറെ പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നു രണ്ട് പരിപാടിയുണ്ട് ഉണ്ടായിരുന്നു നേരത്തെ ഏറ്റു നേരത്തെ ഏറ്റൊരു കേസുകെട്ടാണ് എന്നാലും കല്ല്യാണമൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു കല്ല്യാണമൊക്കുണ്ടായിരുന്നു അത് കുഴപ്പമില്ല ഞാൻ വരാം ആ അതൊക്കെ കല്ല്യാണമാണോ അത് കുഴപ്പമില്ല അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടോളാം ഇവിടെ ആരെയെങ്കിലും പറഞ്ഞു വിട്ടോളാം

പിന്നെ ഫുഡ് എക്സ്പെൻസ് ഒന്ന്

തിരിച്ചു വരാനാണോ അതോ എവിടെയെങ്കിലും

ആ അന്നേരം തിരിച്ചു വരുമോ അതോ

നോക്കാം

ആ ആ അതുപിന്നെ പറയേണ്ട കാര്യം ഇല്ലല്ലോ

ഈ എനിക്കിവിടെ പ്രതീക്ഷയൊന്നും ഇല്ലാതായിപ്പോയി പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെറെ സ്റ്റേഡിയത്തിൽ പോയിട്ടിനി ഫുട്ബോൾ കളി കണ്ടിട്ടൊന്നും ഇല്ല എങ്കിൽപ്പിന്നെ കൊച്ചി ഇന്ന് കണ്ട് പിന്നെ രണ്ടാഴ്ച്ച

ഓഹ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ആ ശരി